ഈ പാട്ട് പാടുമ്പം അതിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത് ഈ പാട്ടിലെ ഓരോ വരികൾക്കും ഉള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പാടുമ്പോഴാണ് അതിൻ്റെ ഇത് ഇമോഷൻസ് പുറത്തേക്ക് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നത് അർത്ഥം അറിയാതെ വെറുതെ രാഗം മാത്രം ഇട്ട് പാടുന്നതല്ല ആ അർത്ഥത്തിൽ പാടുമ്പം നമുക്ക് അതിൽ ജീവിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഈ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉണ്ട് ഈ വേളാങ്കണ്ണി മാതാവിനെക്കുറിച്ച് ഉള്ള ഗാനം അത് സിനിമയിലും ആ പാട്ട് വന്നിട്ടുള്ളതാണ് ആ ഗാനം ആലപിക്കുമ്പോൾ വളരെ അധികം നമുക്ക് ആ ഒരു മാതാവിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു അത്ഭുതപ്രവർത്തി നടന്നത് നമുക്ക് അതുപോലെ പ്രതിഫലിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് നമുക്ക് അത് അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ആ അത് നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞ് ഉള്ളിൽ നിന്ന് ആ ഗാനം പുറത്തേക്ക് വരുന്ന ആ അവസരങ്ങളിലാണ് അപ്പം വെറുതെ പാടാതെ ഇതിൻ്റെ അർത്ഥം മനസിലാക്കി നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് ഗാനമായിട്ട് ആ വാക്കുകൾ വരുമ്പം അതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ഒരു നിറവും വളരെ ഒരു ആയിരിക്കും അതാണീ പാട്ട് പാടുമ്പം വെറുതെ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ രാഗത്തിലും ഈണത്തിലും താളത്തിലും അതിൻ്റെ ഒ പിന്നെ ഒരു മ്യൂസിക് കൂടെ പിന്നണി വന്ന് കഴിയുമ്പം അത് വളരെ അധികം ഹൃദ്യസ്ഥാവുന്നതും ജനങ്ങൾക്ക് ഇഷ്ടം ആവുന്നതും അങ്ങനെ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി ഒന്ന് ജനങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും കന്യക മാതാവിനെ കുറിച്ചുള്ള ഗാനങ്ങളുണ്ട് യേശു നാഥനെക്കുറിച്ചുള്ള ഗാനങ്ങളുണ്ട് ഈ ഗാനങ്ങളെല്ലാം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് അത് ഒരു നെറിവോടുകൂടി പാടുമ്പോഴാണ് നമുക്ക് അത് ഏറ്റവും മനോഹരമാക്കി ഹൃദ്യസ്ഥമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത്